ഇപ്പോൾ സ്കൂളിലൊക്കെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ സ്കൂളിൽ ചിത്ര രചനയ്ക്കൊക്കെയായിട്ട് മത്സരങ്ങൾ കോമ്പറ്റീഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത് കാരണം ഈ കോമ്പറ്റീഷനൊക്കെ വെയ്ക്കുന്നോണ്ട് നമ്മുടെ ചിത്രരചനന്റെ കഴിവുകളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ നല്ലൊരു ഇതാണ് പിന്നെ സ്കൂളുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ചിത്രരചനയ്ക്കായിട്ട് അധ്യാപകരെയൊക്കെ നിയമിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ ചിത്രരചന നമ്മുടെ ഉള്ളിൽ എന്താ പറയാ ഒരു ചിത്ര രചനയ്ക്കുള്ളൊരു എന്താപറയ ഒരു താൽപര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ നല്ലൊരു ഉപകാരമായിരുന്നു കാരണം നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അത് വരയ്ക്കാനും ഒക്കെയുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അങ്ങനെയൊക്കെ ചെയ്തതോട് കൂടി നമുക്ക് ചിത്രരചനയോട് ഒരു താല്പര്യം ഉണ്ടാക്കാനും അത് എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാം എന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് വരാൻ തുടങ്ങി അതൊക്കെ എന്താ പറയാ എന്നെ സംബന്ധിച്ചിടത്തോളം ചിത്രരചനയ്ക്ക് ഒരു നല്ല ഇതായിട്ടാണ് തോന്നിയത് സ്കൂളുകളിലൊക്ക ഇങ്ങനെയാണ് എന്താ പറയാ ചിത്രരചനയെ ചിത്രരചനയെ പ്രോത്സാഹിപ്പിക്കാൻ എന്നെ സഹായിച്ചത് അധ്യാപകരെ വെച്ച് നമ്മളെ കൂടുതൽ പഠിപ്പിക്കുകയും പിന്നെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വെയ്ക്കുകയും ജയി പുറത്തേക്കൊക്കെ പോയിട്ട് കൂടുതൽ കോമ്പറ്റീഷനുകളിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയതൊക്കെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു നല്ല കാര്യം തന്നെയാണ്